കോഴി തന്നെയാണേലൊരു മൂന്നാല് സൈസ് മൂന്നാല് തരം കോഴിയുണ്ട് ബീ വീ ത്രി എയ്റ്റ് ത്രീ ഉണ്ട് ബ്രോയിലര് കോഴിയുണ്ട് നാടന് മൊ ഉണ്ട് മുട്ടക്കോഴി ഉണ്ട് കരിങ്കോഴി ഉണ്ട് അങ്ങനെ ഫാന്സി കോഴിയുണ്ട് ഇപ്പോൾ ബ്രോയിലര് ത്രീ എയ്റ്റ് സീറോ കോഴിയൊന്നാകുമ്പോഴത്തേക്ക് ബീ വീ ത്രി എയ്റ്റ് സീറോ കോഴിയൊന്നാകുമ്പോഴത്തേക്ക് അതിനെ സ് സ് സ്ഥലസൗകര്യം ഇല്ലാത്തതു കൊണ്ട് കൂടു കെട്ടി അതിനെ വളർത്തണം നാടന് മുട്ടക്കോഴി നാടന് കോഴിയാകുമ്പം അതിനെ കൂട് അവന് അതിനു കൂടൊന്നും വേണ്ട അതാകുമ്പം നമുക്ക് സ്ഥലസൗകര്യമുണ്ടെങ്കിൽ അത് ചിക്കിച്ചികഞ്ഞ് അതിൻറ്റാവശ്യത്തിനുള്ള ആഹാരങ്ങൾ കൊത്തിപെറുക്കിയൊക്കെ തിന്നാം പിന്നതുപോലെ കരിങ്കോഴി കരിങ്കോഴി ഇന്നു വിപണിയിൽ ഒരുപാട് വിലയുള്ളതാണ് കുട്ടികള്ക്കെന്തെങ്കിലുമൊക്കെ അസുഖം വന്നാലും ഈ കരിങ്കോഴിയുടെ മുട്ട അന്വേഷിച്ചു തന്നെയാണ് നടക്കുന്നത് അങ്ങനെ പിന്നെ ബ്രോയിലര് കോഴിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇറച്ചി വിൽക്കാനും ഒക്കെ ഉള്ള ഇതുണ്ട് അങ്ങനെ പല കാര്യത്തിനും ഈ കോഴിയൊക്കെ നമ്മളുപയോഗിക്കും ഈ കോഴിയേക്കൊണ്ട് നമുക്കൊരുപാട് കാര്യം ഇതിന് ഇത് എങ്ങനെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നെന്നു ചോദിക്കുകയാണെങ്കിൽ ഇതാണതിന്റെ ഇത് ബീ വീ ത്രി എയ്റ്റ് സീറോയെന്നുള്ള ഉദ്ദേശിക്കുന്ന ആ കോഴി നമുക്ക് സ്ഥലമില്ല നമ്മളിപ്പം കുറച്ചു സ്ഥലമേ ഉള്ളെങ്കിൽ അതിനു കൂട് കെട്ടി നിൽക്കാം പിന്നെ മറ്റുള്ള മരപ്പട്ടി അതുപോലുള്ള മറ്റുള്ള ശല്യങ്ങളിൽ നിന്നൊക്കെ ഇതിനെ രക്ഷപ്പെടുത്തി എടുക്കാം അപ്പം നാടന്കോഴി മോ എന്നു പറയുമ്പം അതുങ്ങൾ നമുക്കൊരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചിക്കിച്ചികഞ്ഞു നടന്ന് ഏതെങ്കിലും മരത്തിലൊക്കെ കയറി അങ്ങനെയിരിക്കും ഇപ്പം അങ്ങനെ പിന്നെ മുട്ടക്കോഴി ആണെങ്കിൽ അത് ഇങ്ങനെ നിൽക്കും അങ്ങനെ കരിങ്കോഴി അങ്ങനെ പലതരത്തിലുള്ള കോഴികളെ ഇങ്ങനെ വളർത്താം നമ്മുടെ വീട്ടിലെ സൗകര്യം അനുസരിച്ചാണ് ഓരോ കോഴികളെയും നമ്മൾ വളര്ത്താനും നോക്കുന്നത് സത്യത്തിലീ കോഴികളെന്നൊക്കെ പറയുമ്പോഴത്തേക്കു നമുക്ക് വളർത്താന് സ് ഒരുപാട് സ്ഥലമുണ്ടെങ്കില് മാത്രമേ എല് ഏതു കോഴിയാണെങ്കിലും വളര്ത്താനേറ്റവും നല്ലത് പിന്നിതിപ്പം ഒരു ബിസിനസ്സായിട്ടു മാറിയിരിക്കുകയല്ലേ അപ്പം അതുപോലെ വലിയ ഏക്കർ കണക്ക് സ്ഥലത്തിൽ വലിയ കൂടൂ കെട്ടി അതുങ്ങളെ അതിനകത്തിടുകയാണെങ്കിൽ ഒരു വന്യമൃഗങ്ങളില് നിന്നുമൊക്കെ അതിനെ സംരക്ഷിക്കാനും കൂടെയാകും അപ്പം ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുള്ളതു കൊണ്ട് നമ്മളാ അതനുസരിച്ചാണ് ഈ കോഴീനെ നോ നോക്കുന്നത് കോഴിയെ ഏതു നല്ല രീതിയിൽ കോഴീനെ വളത്താനായാലും നമ്മളുടെയൊരു സംരക്ഷണം അതുങ്ങള്ക്കുണ്ടാകണം എന്തസുഖം വന്നാലാണെങ്കിലും അതുങ്ങളെ നോക്കണം ഓരോത്തിനും ഇതുങ്ങളൊരുപാടെല്ലാം കൂടെ കൂടി പല ഇതായിട്ടു വരുമ്പം പലപല രോഗങ്ങളുണ്ടാകാനും ഇതുണ്ട് നമ്മളീ കരിങ്കോഴിതന്നെ ഒരുപാട് കുട്ടികളുടെ ഈ ചിലവർ വന്നു പറയാറുണ്ട് ഈ വിമ്മിഷ്ടം ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ കോഴിമുട്ട കരിങ്കോഴിയുടെ മുട്ട കൊടുത്താല് നല്ലതാകും ഇടിവോ ചതവോ ഒക്കെ ഉണ്ടെങ്കില് അതിനു നല്ലതാണെന്നു പറയും അങ്ങനെ പല കാര്യത്തിലുള്ള ആവശ്യത്തിനീ കോഴി ഉപയോഗിക്കാറുണ്ട് പിന്നെ ഇപ്പം മൊട്ടക്കോഴിയെന്നു പറയുമ്പോഴത്തേക്ക് മുട്ട മുട്ട അത് അതുപോലെതന്നെ മുട്ട ഒരുപാടുണ്ടാകുന്നതാണ് അങ്ങനെ പലപല കാര്യങ്ങളാണ് ഈ കോഴിയില്നിന്ന് ഉണ്ടാക്കുന്ന ഇപ്പം എങ്ങനെയൊക്കെ നമ്മൾ പോയാലും ഈ കാ നമ്മള്ക്ക് കര്ഷകരായ നമുക്ക് വീട്ടു മുറ്റത്ത് കുള കോഴിയെ വളര്ത്തിയാല് എന്തുകൊണ്ടും നല്ലൊരു വരുമാനവാ നമ്മളീ വെറുതേയിരിക്കുന്ന സമയത്ത് അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ പോയി നമുക്കിപ്പം ഈ അയല്ക്കൂട്ടങ്ങളില് തന്നെ ആണെങ്കിലും എന്തെങ്കിലും കൂ കിട്ടി കോഴീനെയൊക്കെ വളര്ത്തിയാല് അതു നമുക്കു തിരിച്ചടയ്ക്കാനോ അങ്ങനെയൊക്കെ ഉള്ളൊരു സൗകര്യം തന്നെ ഈ കോഴിയില്നിന്നു നമുക്കുണ്ട് ഒരുപാടാദായങ്ങൾ നമുക്കീ കോഴിയില്നിന്നു കിട്ടും അതുപോലെ ഈ ഇതിൽ പരസ്പരം ഈ കോഴികൾ വ്യത്യസ്തപ്പെട്ടു തന്നെയാണ് ഇരിക്കുന്നത് അതു പറഞ്ഞു അതുപോലെ ഓരോ കാര്യങ്ങളും അങ്ങനെയാണ് നടക്കുന്നത് മുട്ടക്കൊഴിയെന്നു പറയുമ്പം ഒരു ദിവസം പോലും അതു മുട്ടയിടാതിരിക്കത്തില്ല ഇരുപത്തി നാലു മണിക്കൂറും മുട്ടയിട്ടു കൊണ്ടിരിക്കുന്ന നാ മുട്ടയുണ്ട് ഇരുപത്തി നാല് മണിക്കൂറും അല്ലേ ഒരു മുട്ട ഉള്ളതാണീ കോഴിയുടെ ഇതു നമുക്കാക്കോഴി ഇപ്പൊരു മോ കോഴിമുട്ടക്ക് ആറ് ആറ് രൂപ ചിലയിടത്ത് അഞ്ച് എഴുപത്തഞ്ച് അങ്ങനെയൊക്കെ പല വിലയുണ്ടപ്പം നമ്മുടെ വീട്ടിൽ എന്ത് ഇതുണ്ടെങ്കിലും അതു നല്ല രീതിയിൽ മുന്നോട്ടു പോകാന് പറ്റിയതാണീ കോഴി അതുകൊണ്ട് നമുക്ക് ഏറ്റവും എളുപ്പം ഞാന് നോക്കിയിട്ട് ബ്രോയിലർ കോഴീനെ വളര്ത്തുന്നതാണ് നല്ലത് അതാകുമ്പം നമുക്ക് ഇപ്പം അ അറക്കാനും ഈ കോഴിയിറച്ചിയുടെയൊക്കെ ഒരാവശ്യത്തിനു കൊടുക്കാമല്ലോ അപ്പോൾ അതുപോലെ മുന്നോട്ടു പോകാനാണ് ഇതാശ്രയിക്കുന്നത് അതാണ്